ആ പറയൂ ആ ഉദ്ദേശിക്കുന്നുണ്ട് ആ ആ ആ അതെ അതെ ആ ഇപ്പം കുറച്ച് ടൈറ്റിലാണ് ആ ലോണുണ്ട് ഞങ്ങൾ ഹൗസ് ലോണായിട്ടാണ് എടുത്തിരിക്കുന്നത് ഉം ആ അത് രണ്ട് മൂന്ന് വർഷമായി അതേ ആ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം

അയ്ഷാ ബിയാണ് അയ്ഷാ ബി ഇത് മുക്കം ആ കോഴിക്കോട് മുക്കം ശരി ശരി ശരി ഞാനന്വേഷിച്ചിട്ട് ഞാൻ പറയാം ഓ മൂന്ന് വർഷമായി ഹസ്സ്ബൻഡ് ഓ പു ഡ്രൈവറാണ് ആ ശരി അന്വേഷിച്ചിട്ട് ഞാൻ പറയാം ആ ആ ശരി ശരി ഞാൻ എന്താണെന്ന് ആ ആ അത് എത്രയാണ് ശരി ശരി ഞാൻ അന്വേഷിച്ചിട്ട് പറയാം ഓക്കെ